ആ യെസ് ടെൽ മി ആരാണ് ഇത് ആ നമസ്കാരം പറഞ്ഞോളൂ ആ അതെ ഹെഡ് ടീച്ചറാണ് ഓക്കേ ഓക്കേ അഡ്മിഷൻ ഫീസ് മാത്രമായിട്ട് ഇപ്പോൾ വരുന്നത് ഫിഫ്റ്റി തൌസൻഡ് ആകും

അത് കുറച്ച് നമുക്ക് അത് പിറ്റിഎ എല്ലാം തീരുമാനിച്ചത് അല്ലേ അത്രയങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യാൻ ഒന്നും നോക്കാം അത് കുറച്ച് ഇതാക്കാം ഒക്കെ ആ അല്ല അത് നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ തരുന്നതാണ് എല്ലാം ഓൾറെഡി സ്കൂളിൽ നിന്ന് തരും ആ ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങൾ ഏരിയയിൽ ഏത് ഏരിയയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ മതി നമ്മൾ സ്കൂളുണ്ട് ബസിൽ ഫീസ് ഒക്കെ കുറച്ച് ലോങ്ങ് ആവുമ്പോൾ കൂടുതലാണ് പൈസ കുറച്ചു കൂടും നമ്മൾ ഇപ്പോൾ അടുത്തുള്ള ഏരിയ ഒക്കെ എങ്കിൽ ഒരു അഞ്ഞൂറ് അറുനൂറ് അങ്ങനെയാണ് വാങ്ങുന്നത് കുറച്ചു കൂടുതൽ ആകുമ്പോൾ ഒരു തൗസൻറ്റിന് മോളിൽ വരും ആ ആ ആ ടൈം സ്കൂൾ ടൈമിന് അനുസരിച്ചിട്ടാണ് വാൻ ഇപ്പോൾ ചില രണ്ട് സെക്കൻഡ് ട്രിപ്പ് എല്ലാം ഉണ്ടാവലുണ്ട് അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് ഉണ്ടാവുമ്പോൾ കുറച്ച് ലേറ്റ് ആകും ഒരു പത്ത് പത്തു മണി അങ്ങനെ അടുത്തെത്തുമെന്ന് ശരിക്കും ക്ലാസ് തുടങ്ങുന്നത് പത്തുമണി തൊട്ട് നാല് മണി വരെയാണ് ക്ലാസ്സ് ആ ആ രണ്ട് മിനിറ്റ് ആയിട്ട് ഹലോ ആ ആ പറഞ്ഞോളൂ വേറെ എന്തെങ്കിലും ആ പറഞ്ഞോളൂ ആ ആ അതേ അല്ലേ അത് നമ്മൾ സ്കൂളിൽ ആ പറഞ്ഞോ ആ അത് നമ്മൾ ഏർപ്പാട് ചെയ്യാമല്ലോ നമ്മളെ സ്കൂളിൽ അതിനുള്ള സൗകര്യമെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ ബുക്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുപറഞ്ഞാൽ ഇതിൽ ഈ നിങ്ങളുടെ ഈ ഫീസിൽ തന്നെ ബുക്സ് എല്ലാം പെടും ആ ആ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും സ്കൂളിൽ നിന്ന് ബുക്സും കിട്ടും പിന്നെ പിന്നെ പറഞ്ഞാൽ ട്യൂഷൻ്റെ സൗകര്യമുണ്ട് പക്ഷേ അതിന് എക്സ്ട്രാ ഫീസ് എല്ലാം നിങ്ങൾ നൽകേണ്ടി വരും

ആ യോഗ ക്ലാസ് ഉണ്ട് യോഗ ക്ലാസ് ഉണ്ട് സ്കൂൾ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ആ വീക്കിലി വീക്കിലി വൺസ് വീക്കിലി വൺസ് ആ ആ ശരി ആ ആണ് ആണ് ശരി താങ്ക് യു